നമ്മൾ നമുക്ക് എഴുതാൻ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളങ്ങനെ എഴുതും അതുപോലെ എഴുതി എഴുതിയിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ അവരതു പറയും ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവര് പറയും നല്ല നല്ല നല്ല ഹാൻഡ് റൈറ്റ് നല്ല രസമുള്ള എഴത്ത് എനിക്കും ഇങ്ങനത്തെ എഴുത്താണെങ്കിൽ കൊള്ളാമായിരുന്നു അങ്ങനെയൊക്കെ പറയും ചിലവര് പറയും എനിക്കിഷ്ടപ്പെട്ടില്ല എന്നു പറയും ചിലവരുടെ മുഖം വേറെ ഒരുപോലെയാവും എനിക്കിതിലേറെ എഴുതാനായി കഴിയും അതുപോലെ എനിക്ക് ഇതിലേറെ എഴുതാനും അതുപോലെ ഇതിലേറെ ഭംഗിയിലെഴുതാനൊക്കെ കഴിയുമെന്നൊക്കെ പറയും ഇപ്പോള് നമ്മൾ നമുക്കു കൂടുതൽ സങ്കടവും മനസ്സിനു കൂടുതൽ സങ്കടം അതുപോലെ സങ്കടമൊക്കെ വരും സങ്കടം വരും അതുപോലെ ഒരു ചിലവര് നമ്മളോടു പറയും നല്ല ഭംഗിയുണ്ടെന്നു പറയുമ്പോൾ നമുക്കു കൂടുതൽ പിന്നെയും പിന്നെയും എഴുതി ഒന്നുകൂടി നല്ല ഭംഗിയാക്കണം ഒന്നുകൂടി നല്ല ഭംഗിയിലെഴുതണം ഒന്നുകൂടി നല്ല ആൾക്കാര് എങ്ങനെ നമുക്കു നമ്മളുടെ എഴുത്തു കണ്ടാൽ എങ്ങനെയൊക്കെ അവര്ക്കിഷ്ടപ്പെടുമോ അതുപോലെയൊക്കെ നമ്മൾ കൂടുതൽ കൂടുതല് എഴുതാൻ നമ്മൾ നമ്മളെക്കൊണ്ടു സാധിപ്പിക്കും നമ്മളതിനു കൂടുതൽ എത്രത്തോളം നമ്മള്ക്കു നമ്മളക്കൊണ്ടു കഴിയുന്ന എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം നമ്മള് ചെയ്യും പക്ഷെ നമ്മൾ നമ്മളുടെ ഇഷ്ടം ചിലവർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കു കൂടുതൽ സങ്കടം വരുകയും നമുക്ക് എഴുത്തിനോടു താല്പര്യമില്ലാതിരിക്കുകയും ഒക്കെ ചെയ്യും അപ്പോള് താല്പര്യമില്ലാതെ എന്നെക്കൊണ്ടതു കഴിയില്ല എന്നു കരുതുകയൊക്കെ ചെയ്യും ഇപ്പോൾ നമ്മളെ നല്ല പ്രചോദനമാണെങ്കിൽ നമ്മളെ നമ്മൾ കൂടുതൽ എഴുതി നല്ല ഭംഗിയിലെഴുതി ഇനിയും എനിക്കെഴുതാൻ കഴിയും കൂടുതൽ നല്ല രീതിയിൽ കഴിയും എന്ന് എനിക്കു നമുക്കു തന്നെ ഒരു വിശ്വാസമുണ്ടാവും നമ്മൾ കൂടുതൽ എങ്ങനെയൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് എഴുതുമോ എഴുതാൻ പറ്റുമോ അതുപോലെയൊക്കെ നമ്മൾ എഴുതുക അതുപോലെ റൈറ്റിങ് എങ്ങനെയൊക്കെ ശരിയാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ശരിയാക്കും നമുക്ക് എങ്ങനെയൊക്കെ എഫേർട്ട് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എഫേർട്ട് എടുത്തു നമ്മൾ ചെയ്യും കൂടുതൽ എഴുതി എഴുതി കൂടുതൽ എഴുതുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ഹാൻഡ് റൈറ്റ് വരാൻ തുടങ്ങും നല്ല നല്ല നല്ല നല്ല അക്ഷരങ്ങൾ അതുപോലെ എഴുതുമ്പോൾ കൂടുതൽ എഴുതുമ്പോൾ എല്ലാതും നല്ല വലുതാക്കി എഴുതുക അതുപോലെ സ്പേസ് വിട്ട് വിട്ടെഴുതുക അങ്ങനെയൊക്കെ എഴുതിയാൽ തന്നെ നമുക്കു കൂടുതൽ ഭംഗിയിലഴുതാൻ കഴിയും നല്ല നല്ല വിഷയങ്ങൾ നല്ല നല്ല നല്ല നല്ല എഴുത്തുകൾ കണ്ടു നമുക്കു കൂടുതൽ എഴുതുന്ന മത്സരത്തിലൊക്കെ വിജയിക്കാനൊക്കെ കഴിയും അങ്ങനെ കൂടുതൽ കൂടുതൽ എഴുതി കൂടുതൽ കൂടുതൽ വെല്ലുവിളികൾ നമുക്കു നമുക്കു തന്നെ നമ്മുടെ വെല്ലുവിളിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നു മറികിടക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കു വേണം അതാണു വേണ്ടത്